എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കെന്ന് പറയുന്നത് അമ്മ എന്നുള്ള വാക്കാണ് കാരണം രണ്ടക്ഷരമുള്ളൂ ആ രണ്ടക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ അമ്മമാർ എല്ലാവർക്കും ഒരേ പോലെ ഉള്ളതാണ് അമ്മ അമ്മ ഇല്ലാണ്ട് നമുക്ക് ഒന്നും കഴിയില്ല ഒന്നിനും കഴിയില്ല കാരണം എല്ലാത്തിനും അമ്മ വേണം എല്ലാ കാര്യത്തിനും സഹായിക്കാനും ഇപ്പം എവിടെ ചെന്നാലും അമ്മയെന്നു വിളിക്കാനേ നമുക്ക് പറ്റുളൂ അപ്പം ഇപ്പം അമ്മേനെപ്പറ്റി ആണെങ്കിലും സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഓരോ കവിതകളുണ്ട് കഥകളുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിനും അമ്മയാണ് നമുക്ക് ഏറ്റവും വലുത് എനിക്കെൻ്റെ അമ്മയാട്ടോ ഏറ്റവും വലുത് അതുപോലെ തന്നെ എനിക്ക് ഈ മലയാള ഭാഷ സംസാരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം ഏറ്റവും പാടുള്ള ഭാഷയാണ് മലയാളം പഠിക്കുക എന്നത് അപ്പം ഇപ്പോൾ പുറത്ത് ചെന്നാലും നമ്മുടെ ഭാഷയൊന്നും അവിടെ സംസാരിക്കാൻ പറ്റുകേല കാരണം അവരുടെതായ രീതിയിലുള്ള ഭാഷയാണ് അവിടെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ എല്ലാവരും ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പുറത്തുപോയി പഠിക്കുകയൊക്കെ അപ്പോൾ അവരുടേതായ ഭാഷയാണ് അവർ സംസാരിക്കണേ കൂടുതലും ആൾക്കാർ നമ്മുടെ ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ തന്നെയാണ് ഒരുപാട് പാടാണ് പഠിക്കാൻ എന്നാലും തട്ടലും മുട്ടലും ഇല്ലാതൊക്കെ അങ്ങ് ചിലവർക്ക് വായിക്കാനും അറിയത്തില്ല പഠിക്കാനും അറിയത്തില്ല എന്നാലും അവർക്ക് എല്ലാ അക്ഷരങ്ങളൊക്കെ അറിയാം എന്നാലും അങ്ങനെ അഭിമാനത്തോടു കൂടി പോകുന്നു